എന്താണ് ടീച്ചിങ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ടീച്ചിംഗ് പ്രൊഫഷനാണ് എനിക്ക് പണ്ടു മുതലേ ഇഷ്ടമുള്ള കാര്യം പ്രത്യേകിച്ച് അമ്മ പ കുഞ്ഞിലെ മുതൽ പറയാറുണ്ട് ഞാൻ വലുതാകുമ്പോൾ ഒരു ടീച്ചറാകണം അത് അമ്മയുടെ ആഗ്രഹമാണ് ഞാനൊരു നല്ല ടീച്ചർ ആകണം എന്നുള്ളത് അതുകൊണ്ടുതന്നെയാണ് അധ്യാപക പ്രൊഫഷൻ ഞാൻ തിരഞ്ഞെടുത്തതും പിന്നെ ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുമ്പം ഏറ്റവും മികച്ച ഒരു തൊഴിൽ ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഈ ലോകത്ത് ലോകത്ത് ഈ ലോകത്ത് തന്നെ ഇപ്പോൾ ഒരു ഡോക്ടർ ആണേലും എൻജിനീയറാണെങ്കിലും അങ്ങനെയുള്ള ഏത് പ്രൊഫഷൻ ആണെങ്കിലും അവരെയെല്ലാം വളർത്തിയെടുക്കുന്നതിൻ്റെ പിന്നിലൊരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ഉണ്ടാകും അല്ലാണ്ട് ഒറ്റ ഒറ്റ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ മാനത്ത് നിന്ന് പൊട്ടി വീഴുന്ന ഒന്നായിട്ടല്ലല്ലോ ഡോക്ടർമാരും നേഴ്സുമാരും അവർ ആ പാതയിലേക്ക് എത്തിക്കാൻ ആയിട്ട് അവരുടെ ജീവിതത്തിൽ അവർ ഒരു ഒരു നിലയിൽ എത്തി തീരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അധ്യാപകരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മലയാളം തന്നെയാണ് മലയാളം ഭരണ ഭാഷ നമ്മുടെ മലയാളമാണ് പിന്നെ പറയുകയാണെങ്കിൽ മലയാളമാണ് എപ്പോഴും കേരളത്തിൽ തന്നെ മറ്റുള്ളവരോട് ഏറ്റവും എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന സാധാരണക്കാർക്ക് പോലും നല്ല രീതിയിൽ സംസാരിക്കാൻ അങ്ങോട്ടുമിങ്ങോട്ടും സംസാരിക്കാനും വളരെയധികം എളുപ്പമുള്ള ഒരു ഭാഷയായിട്ടാണ് മലയാളം പിന്നെ പണ്ട് ഞാൻ ബിരുധത്തിനും ബിരുദാനന്തര ബിരുദവും മലയാളം തന്നെയാണ് എടുത്തത് പിന്നെ ഒരുപാട് പേർ ഈ മലയാളത്തോട് താല്പര്യം ഇല്ലാത്ത ഒരുപാട് പേർ ഇങ്ങനെ അങ്ങനെ ഈ മലയാളം പഠിക്കണ്ടായിരുന്നു ഒരു എന്താ ഒരിടത്തും എത്തിപ്പെടാൻ സാധ്യതയില്ല വേറെന്തെങ്കിലും സബ്ജെക്ട് എടുക്കാൻ പാടില്ലായിരുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ ഇങ്ങനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു മലയാളം അധ്യാപിക ആവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഞാൻ ആ ലക്ഷ്യത്തിൽ എത്തിപ്പെട്ടു എത്തിപ്പെട്ടു അല്ലെങ്കിൽ ആ പാതയിലാണ് ഇപ്പം തന്നെ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് കാരണം മലയാളത്തിൽ രണ്ട് ഡിഗ്രികൾ സ്വന്തമാക്കാൻ പറ്റി മാത്രമല്ല മലയാളത്തിൽ തന്നെ ബി എഡും സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും പ്രായത്തിൽ തന്നെ ഇത്രയും പഠിക്കാനും സാധിച്ചു ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ തെരഞ്ഞെടുത്തു ഇഷ്ടപ്പെട്ട വിഷയത്തിൽ തന്നെ ഒരു ജോലി നേടാൻ സാധിച്ചു അതിങ്ങനെയെക്കെ കൊണ്ട് ഞാൻ വളരെയധികം സന്തോഷവതിയാണ് പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും നല്ല ബഹുമാനമുണ്ട് എന്നെ കാണുമ്പോൾ നേരത്തെ മലയാളമാണ് പഠിക്കുന്നത് എന്നും പറഞ്ഞ് എന്നെ പുച്ഛിച്ച് തള്ളിയിരുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ മുന്നിൽ ഇപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ഇപ്പോൾ എനിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റും അവരിപ്പോൾ ഒരു പഴയ പോലെയല്ല ഇച്ചിരി പണ്ടത്തേക്കാളും അധികം ബഹുമാനം നൽകി ബഹുമാനം നൽകുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പം തന്നെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവതിയാണ്